ആ ചേട്ടാ നമ്മളെ ആ അത് ഇന്നലെ കഴിഞ്ഞു ഇനിയിപ്പോൾ വയറിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങണം ആ അതെ ആ ആ നിങ്ങളതെടുക്കില്ലെ നമ്മൾ ക്യാഷ് തന്നാൽ ഇല്ല ഇല്ല നിങ്ങൾ അതെഴുതിയാൽ മതി ഇനിയിപ്പോൾ പുതിയതായിട്ട് ഇല്ല മൊത്തത്തിൽ നാലു ഫാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടു റൂമിലും രണ്ടു റൂമിലും ഹാളിലും ഡൈനിങ്ങിനു മാത്രം മതി ബാക്കിയുള്ളിടത്ത് വേണ്ട ആ അതെയതെ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാകുമ്പോഴേക്കും ഒന്നു തീർത്തുതരണം ഏകദേശം ഇത് എത്രയാവും മൊത്തത്തിൽ ഇല്ല ഇല്ല സാധാരണ സാധാരണ മതി ഇല്ല ഇല്ല പറഞ്ഞിട്ടില്ല ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങേണ്ടി വരും ഒരെണ്ണമുണ്ട് ആ കുറച്ചു പഴയതാണ് ആ ആ അതെ അതെ ആ നിങ്ങളെന്താ നല്ലതാണോ നോക്കിയിട്ടു ഒന്നു വാങ്ങിക്കോളൂ ഇല്ല ഇല്ല ഇല്ല ഇല്ല മൊത്തത്തിൽ മേടിക്കണം ആ ഓക്കേ എന്നാൽ ആ നിങ്ങൾ എന്താണെന്നു വച്ചാൽ ഒരു വൈകുന്നേരത്തിനുള്ളിൽ ലിസ്റ്റൊന്നു തന്നാൽ പോയി വാങ്ങുമ്പോൾ കാശ് തന്നേക്കാം

ആ

ആ റെഡി റെഡി ആ ശരി ആ അതെയതെ ആ ശരി